എനിക്കറിയാവുന്ന മൊത്ത വ്യാപാര വിപണികളേതൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെയായിട്ട് ഉള്ള ഒരു മൊത്ത വ്യാപാര കടയാണെനിക്കറിയുന്നത് അവിടെ ഒരുമാതിരിയിൽപ്പെട്ട എല്ലാ സാധനവുമിപ്പോൾ തുണിയുടെയാണ് കൂടുതലായിട്ടും വരുന്നത് തുണിയാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തവ്യാപാരമായിട്ടൊത്തിരി കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഒരുപാടാൾക്കാർ ഈ കുഞ്ഞുകുഞ്ഞു കച്ചവടങ്ങൾ നടത്തുന്ന ആൾക്കാരൊക്കെ അവിടുന്ന് വന്ന് വില കുറഞ്ഞ രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആ ചെറിയ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ നടത്തുന്നുണ്ട് അതാണെനിക്കറിയാവുന്ന മെയിനായിട്ടും എനിക്കറിയാവുന്നൊരു മൊത്ത വ്യാപാര ഇതെന്ന് പറയുന്നത് അതുപോലെ പിന്നെ ഉള്ളൊരെണ്ണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനറി കടയാണ് അതിൻ്റെ മൊത്തവ്യാപാരവാണ് അതെന്നു പറയുമ്പോഴത്തേക്കിലും നമ്മുടെ പേപ്പർ ഗ്ലാസുകൾ അതുപോലെ ഒരുപാട് നമ്മളെ ബോണ്ട് പേപ്പറുകളങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റേഷനറി സാധനങ്ങളെല്ലാമായിട്ടുള്ള ഒരു മൊത്തവ്യാപാര കടയാണ് അവിടെയെന്ന് പറയുമ്പോൾ എല്ലാ ഒരു വിധപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടുന്ന് കിട്ടുന്നുണ്ട് അതും ഇതേപോലെ ആൾക്കാരവിടുന്ന് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാറുണ്ട് മൊത്തവ്യാപാരായിട്ടും അതല്ലാണ്ട് ചില്ലറ വ്യാപാരമായിട്ടും ചെയ്യാൻ വേണ്ടീട്ടും അല്ലാണ്ടുമൊക്കെയായിട്ടുമാൾ ക്കാർ അവരുടെയാവശ്യത്തിന് വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവാറുണ്ട് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിലിപ്പം ഈയിടെയായിട്ട് പലചരക്കുകളിനും പച്ചക്കറിയുടെയും വിലയിൽ വന്നൊരു മാറ്റമെന്ന് പറയാൻ പണ്ടുണ്ടായിരുന്നതൊക്കെ എനിക്കത്ര അറിയത്തില്ലെങ്കിൽപ്പോലും വീട്ടിൽനിന്നൊക്കെ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന വിലയെ വെച്ച് നോക്കുമ്പം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയും വിലയിലുള്ള സാധനങ്ങളാണിന്ന് പച്ചക്കറികൾക്കൊക്കെയത്രയും വില വരുന്നുണ്ട് പച്ചക്കറികൾക്കൊക്കെ അങ്ങ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തന്നെ തുടങ്ങി ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള വിലയൊന്നും അല്ല ഇപ്പോഴുള്ള വിലയെന്ന് പറ നല്ല തീ പിടിച്ച വിലയെന്ന് പറയും അത്രയും വില കേറിയങ്ങ് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പച്ചക്കറിയെല്ലാം തിന്നെന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസം അതിന് മെയിൻ കാരണമെന്നു പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്നില്ലായെന്നുള്ളതാ നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ സോറി പുറത്ത് സ്ഥലങ്ങളിൽ നിന്നാണല്ലോ നമുക്ക് വരുന്നത് അപ്പം അതുകൊണ്ടുതന്നെ അതാണ് മെയിൻ ഇതിനുള്ളൊരു കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ കച്ചവടം ചെയ്യാതെ പുറത്ത് സ്ഥലത്തുനിന്ന് വരുമ്പോൾ ആ വരുന്നതിനുള്ള ചിലവ് അവർ കൃഷി ചെയ്യുന്നതിനുള്ള ചിലവ് അങ്ങനെ എല്ലാം കൂടെയൊന്നിച്ച് വരുന്നതുകൊണ്ട് അതാണവരുടെയൊരു മെയിൻ പ്രശ്നം ഐ മീൻ ഇത്രയും പൈസ കൂടാനുള്ള കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതൊക്കെയാണിപ്പോഴത്തെ പച്ചക്കറികളുടെയൊക്കെ വിലയിൽ വന്നൊരു മാറ്റമെന്ന് പറയുന്നത് പിന്നെ ഓൺലൈൻ ഷോപ്പിംഗിനെപ്പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഞാനും ഓൺലൈൻ ഷോപ്പിംഗൊക്കെ ചെയ്യുന്നതാണ് അത് അഭിപ്രായം നല്ല അഭിപ്രായമുണ്ട് ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് മോശം അഭിപ്രായമാണ് കാരണം ചിലത് വാങ്ങിക്കുമ്പോൾ നമ്മളതിനകത്ത് കാണുന്നത് പോലേ അല്ല വരുന്നത് വളരെ മോശം ഭയങ്കര നമ്മൾ പൈസ കൊടുത്തതിന് ഒരു വിലയില്ലാത്ത പോലത്തെ സാധനങ്ങളാണ് ചില സമയത്ത് വരുന്നത് പക്ഷേ ചില സമയത്ത് നമുക്ക് ശരിക്കും നമ്മളാ അതിനകത്തെന്താണോ കണ്ടത് അല്ലെങ്കിലിപ്പോൾ നമ്മളൊരു ഫോട്ടോയോ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മളതിഷ്ടപ്പെട്ട് നമ്മൾ നമ്മളും വാങ്ങിക്കുന്നേ അപ്പോൾ അതിൽ കണ്ടത് എന്താണോ അത് തന്നെ നമുക്ക് ചില സമയത്ത് വരാറുണ്ട് ഇതൊക്കെയാണ് ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോഴെനിക്ക് വരുന്നത് ഒരു സാധനങ്ങളുടെ വെച്ചിട്ട് ഞാൻ പറയുന്നത് എനിക്ക് പറയാൻ തോന്നുന്നതെന്ന് പറയുന്നത് ഇതാണ് കാരണം രണ്ട് വിധത്തിലും വരാറുണ്ട് നല്ലതും മോശവും വരാറ് അതുകൊണ്ട് തന്നെ മോശമാണ് എന്നും എനിക്ക് പറ ഞാൻ പറയില്ല നല്ലതാണ് എല്ലാം നല്ലാണെന്ന് ഞാൻ പറയത്തില്ല ഒരേ സമയം നല്ല സാധനങ്ങളും മോശം സാധനങ്ങളുമുണ്ട് അത് ചിലപ്പം വിൽക്കുന്ന ആൾക്കാരുടെയൊരിത് പോലെയിരിക്കും ആ വിൽക്കുന്നവർ നമ്മൾ വാങ്ങിക്കുന്ന ആൾക്കാരുടെ പൈസക്കെന്തുമാത്രം മൂല്യം നൽകുന്നുണ്ടോ അതുപോലെയായിരിക്കും അവർ നമുക്ക് വേണ്ടി തരുന്ന സാധനങ്ങളും അതിന്റെയൊരു ക്വാളിറ്റിയെന്നൊക്കെ പറയുന്നത് അത്രയൊക്കെയാണ്